മലയാളഭാഷ മാതൃഭാഷ അമ്മയായ മലയാളഭാഷ എല്ലാവരും സംസാരിക്കുന്നതിനായി പുതിയ കുട്ടികൾ ഇപ്പോൾ മലയാള ഭാഷയിലേക്കൊന്നും കടന്നു വരുന്നില്ല കാരണം അവർ പുറം രാജ്യങ്ങളിൽ പോയി മറ്റും ഇംഗ്ലീഷും മറ്റും പുറം നാടുകളിലെ ഭാഷ പഠിക്കുന്നു അപ്പോൾ അമ്മയായ മാതൃഭാഷ എല്ലാവരും മറക്കുന്നു ആത് എല്ലാവരും ഓർത്തിരിക്കുക അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ സഹായിക്കുക അതിന് നമുക്ക് ഭാഗമാവാൻ കഴിയുക മലയാളഫാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്നാൽ കഴിയുന്നവിധം ഞാൻ കുട്ടികളെ സഹായിക്കും ഈ ശ്രമങ്ങൾ ആളുകൾ എങ്ങനെയാണ് ഭാഗമാകാൻ കഴിയുക എന്നു ചോദിച്ചാൽ കുട്ടികൾ ഒരു കുട്ടികളെ മലയാളഭാഷ പഠിപ്പിച്ചെടുക്കുക ആ മാതൃഭാഷയായ മലയാളം വളരെ ലളിതവും എല്ലാവർക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്നവിധവും ആണ് അതിനാൽ എല്ലാവരും അമ്മയായ മലയാള മാതൃഭാഷ പഠിച്ചെടുക്കുക അവർക്ക് ആവുന്നവിധം സഹായം നമ്മൾ ഏർപ്പെടുത്തിക്കൊടുക്കുക പിന്നെയുള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും മലയാളം വായിക്കുവാനും എഴുതുവാനും സാധിക്കാറില്ല അതിനുള്ള ക്ലാസുകൾ പ്രത്യേകം നമ്മൾ നൽകേണ്ടതാണ്